ആ പൂ ഇല്ലേ എനിക്ക് ഒരു കല്ല്യാണത്തിന് കുറച്ച് പൂക്കൾ വേണമായിരുന്നു മാല കെട്ടാനും മറ്റ് പൂക്കൾ എല്ലാം ആയിട്ട് മുല്ലപ്പൂ എല്ലാം ആയിട്ട് കുറച്ച് പൂക്കൾ എത്ര വില

എനിക്ക് മാർച്ച് പത്തിന് മാർച്ച് പത്തിന് ആ ഒരു പൂമാലയ്ക്ക് എത്ര പൈസ ആവും രണ്ട് പൂമാലയ്ക്ക് ആ കല്ല്യാണ പൂമാല രണ്ട് ബൊക്കയും രണ്ട് മാലയും ആ ആ ഉം ആ ആ അത് കല്ല്യാണം ശ്രീപുരം ഓഡിറ്റോറിയത്തിൽനിന്ന് ബോവിക്കാനം ആ പൂ വേണം കല്ല്യാണ പെണ്ണിന് പൂ വേണം അപ്പോൾ മുല്ലയ്ക്ക് ഇപ്പോൾ മുഴത്തിന് എത്ര റേറ്റ് ആ മുല്ലപ്പൂ ആ അതുതന്നെ ഒരു മുഴത്തിന് ഇപ്പോൾ എത്ര ഉണ്ട്

ആ ആ നമുക്ക് ഒരു ആ നമുക്കൊരു ഇരുപത്തഞ്ച് മുഴം വേണം ആ പിന്നെ രണ്ട് മാല വേണം രണ്ട് ബൊക്കേ ആ ആ ഡെക്കറേഷൻ ആക്കാൻ പൂ വേണം കുറച്ച് പിന്നെ വന്നവർക്ക് ചൂടാൻ കൊടുക്കാൻ കുറച്ച് മുല്ലപ്പൂ വേണം ആ ഇരുപതിനായിരത്തിൻ്റെ മതിയാവും ആയി ആയി നിങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ച് തന്നാൽ മതി ഓക്കെ ഓക്കെ